കരയിൽ നിന്നും അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് നീന്തുമ്പോൾ നിരവധി സുരക്ഷാ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് ലൈഫ് ജാക്കറ്റുകൾ ധരിക്കുക ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക നീരൊഴുക്ക് കുറഞ്ഞ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക ഒഴുക്കിനെതിരെ നീന്താതെ ഒഴുക്കിനനുസരിച്ച് നീന്തുക തുടങ്ങിയ മുൻകരുതലുകൾ നാം സ്വീകരിക്കണം അതുപോലെ വലിയ ജലാശങ്ങളിൽ വഴുവഴുപ്പുള്ള പാറകൾ പായലുകൾ ശക്തമായ ഒഴുക്ക് അടിയൊഴുക്ക് ചുളികൾ മണൽക്കുഴികൾ എന്നിവയെല്ലാം അപകടകരമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു